ഓരോ കലാവിഷ്കാരങ്ങളിലും മലയാളഭാഷ ഉപയോഗിക്കുന്ന രീതി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സാഹിത്യത്തിലും കവിതകളിലും ആയിക്കോട്ടെ മലയാളഭാഷയുടെ രീതി വളരെ വ്യത്യസ്തമേറിയതാണ് സാഹിത്യവും കവിതയും മാത്രമല്ല കവികളെയും അല്ലെങ്കിൽ സാഹിത്യകാരെയും അനുസരിച്ചും മലയാളഭാഷയുടെ രീതി അവർ എഴുതുന്ന അല്ലെങ്കിൽ അവർ രചിക്കുന്ന കവിതകളിലും സാഹിത്യത്തിലും തന്നെ വ്യത്യാസമുണ്ട് അതായത് തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതുന്നത് പോലെ ആയിരിക്കത്തില്ല കുമാരനാശാൻ എഴുതിയിരിക്കുന്നത് ആ ഒരു വ്യത്യാസം എപ്പോഴും ആ ഓരോ കവികളും അല്ലെങ്കിൽ ഓരോ സാഹിത്യകാരനും എഴുതുമ്പോഴും ആ വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട് കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കവിത എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ കവിത രചിക്കുന്ന സമയത്ത് കവിതയിലെ വാക്കുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കൂടുതൽ സ്വരം ഉണ്ടാവാം ഒരേപോലത്തെ സ്വരങ്ങൾ വരുന്ന വാക്കുകൾ ഈണം കൊടുക്കാൻ കഴിവുള്ള വാക്കുകളായിരിക്കും കൂടുതലും കവിതകളിൽ ഉപയോഗിക്കാറുള്ളത് മാത്രമല്ല പെട്ടെന്ന് ഒരു വ്യക്തി അതായത് സാധാരണക്കാരനായ ഒരു വ്യക്തി ഒരു കവിത വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കവിയുടെ ഉള്ളടക്കം നമുക്ക് മനസ്സിലാക്കണം എന്നില്ല പക്ഷേ മലയാളം ലിറ്ററേച്ചർ പഠിച്ച ഒരു അധ്യാപികയ്ക്കോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥിക്കോ മാത്രമേ ആ ഒരു കവിയുടെ ഉദ്ദേശം പൂർണമായും മനസ്സിലാവത്തുള്ളൂ നമ്മൾ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ കവിതയൊക്കെ ടീച്ചർമാര് വായിച്ചു കേൾപ്പിച്ച് അവർ അർത്ഥം പറഞ്ഞ് തന്നാലേ അതിലുള്ള ഉള്ളടക്കം നമുക്ക് മനസ്സിലാവുകയുള്ളൂ കാരണം കവി അതിൽ ഉപയോഗിക്കുന്ന വാക്ക് വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ കവിയുടെ മാനസികാവസ്ഥയും വെച്ച് ഒക്കെ ആയിരിക്കും അപ്പോൾ അത് അറിയുന്നത് ആ ലിറ്ററേച്ചർ പഠിച്ച ഒരു വ്യക്തിക്കേ പൂർണ്ണമായും അറിയാവൂ അപ്പോൾ മലയാളഭാഷ ഉപയോഗിക്കുന്ന രീതി തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ സാഹിത്യത്തിലും കവിതയിലും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു കഥ അല്ലെങ്കിൽ നോവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്നത് കൂടുതലും അച്ചടി ഭാഷയായിരിക്കും അതായത് നമുക്ക് ഓരോ ജില്ലയിലും ഓരോ വ്യത്യസ്തമായ ഭാഷാ ശൈലിയാണ് ഒരു ജില്ലയിൽ സംസാരിക്കുന്നതായിരിക്കില്ല അങ്ങേ അറ്റത്തുള്ള ജില്ലയിൽ സംസാരിക്കുന്നത് വളരെ വ്യത്യാസമായിരിക്കും പക്ഷേ എല്ലാ ജില്ലക്കാരെയും ഉൾക്കൊണ്ട് അതിനെ വായനയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുന്ന ഒരു ഭാഷ അല്ലെങ്കിൽ എഴുതുന്ന ഒരു ശൈലിയാണ് അച്ചടി ശൈലി ആ അച്ചടി ഭാഷയിൽ എഴുതുന്നതായിരിക്കും കൂടുതലും ഈ സാഹിത്യം പക്ഷേ കവിതയ്ക്ക് അങ്ങനെ നിർബന്ധമില്ല അപ്പോൾ കവിയുടെ മനസ്സിനും കവിയുടെ മനസ്സിന് വരുന്ന ഈണത്തെയും മുൻനിർത്തി ആയിരിക്കും ആ ഒരു കവിത ഉണ്ടാകുന്നത് കവിതയിൽ കവി കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് ഈണത്തിനായിരിക്കും അപ്പോൾ ഈണത്തിന് വഴങ്ങിയ വാക്കുകളായിരിക്കും കൂടുതലും ഒരു കവിതയിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളഭാഷ ഉപയോഗിക്കുന്ന രീതി അത് ഓരോ വ്യക്തിക്കും ഓരോ നാടിനും ഓരോ സാഹിത്യത്തിനും അല്ലെങ്കിൽ ഓരോ കവിതക്കും അടിസ്ഥാനത്തിൽ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അത് മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് എന്താണ് കവി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആ സാഹിത്യകാരൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും മാത്രമല്ല മലയാളഭാഷ പണ്ട് ഉപയോഗിക്കുന്നതിനെക്കാളും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ കാലത്ത് ഉപയോഗിക്കുന്നത് ആധുനിക മലയാളവും പഴയ മലയാളവും എന്നാണ് പറയുന്നത് അപ്പോൾ ആധുനിക മലയാളം ആണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പഴയ മലയാളത്തിനെക്കാളും അതും കൂടുതലും അച്ചടി ഭാഷയായിരിക്കും ഉപയോഗിക്കാറ് എന്നാൽ പോലും പണ്ടത്തെ കവികൾ എഴുതിയിരുന്ന ആ ഒരു കവിതയുടെ ആ ഒരു ഫീലിംഗ് ഇപ്പോഴത്തെ കവികൾ എഴുതുമ്പോൾ കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും ആ ഒരു മാറ്റം ഒരുപാട് മലയാളഭാഷയിൽ ഇപ്പോഴും വന്നിട്ടുണ്ട് അത് മലയാളഭാഷയിലെ ഓരോ സാഹിത്യത്തിലും കവിതയിലും ആ കവികൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഉപയോഗിക്കുന്നുമുണ്ട്